ഞങ്ങളുടെ പ്രദേശത്ത് എല്ലാവരും സംസാരിക്കുന്ന ഫാഷ മലയാളമാണ് ഉപഫാഷകളൊന്നും അധികം ഉപയോഗിക്കാറില്ല പിന്നെ ഓരോ ജില്ലക്കനുസരിച്ചും മലയാളം വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു ഓരോ ജില്ല അല്ലെങ്കിൽ ഓരോ പ്രദേശത്തും സംസാരിക്കുന്ന ഫാഷ വ്യത്യസ്തമായിരിക്കും മലയാളം ആയിരിക്കുമെങ്കിലും അത് കുറച്ച് വ്യത്യസ്തപ്പെട്ടിരിക്കും പിന്നെ ജോലി ആവശ്യങ്ങൾക്കും മറ്റും വിദ്യാഫ്യാസ ആവശ്യങ്ങൾക്കും അത് വിദേശരാജ്യങ്ങളിലോ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലോ ജോലി തേടി വിദ്യാഭ്യാസ ആവശ്യത്തിനോ പോവുകയാണെങ്കിൽ അവിടുത്തെ ഫാഷയും തീർച്ചയായും അറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ അത് പഠിക്കണം അങ്ങനെ പഠിക്കുന്ന ആൾക്കാരും ഉണ്ട് പിന്നെ നമ്മുടെ മലയാളമെന്ന് പറയുമ്പോൾ നമ്മുടെ അമ്മക്ക് തുല്യമായ ഒരു സ്ഥാനമാണ് നമ്മുടെ മാതൃഫാഷക്ക് നമ്മൾ കൊടുക്കാറുള്ളത് കാരണം നമ്മുടെ സാധാരണക്കാരിൽ അറിവും ശാസ്ത്രാവബോധവും എത്തിക്കുവാൻ നമ്മുടെ മാതൃഫാഷയേ പോലെ വൈകാരിക ശക്തിയുള്ള മറ്റൊരു ഫാഷയില്ല എന്ന് തന്നെ നമുക്ക് പറയാം അതേപോലെ നമ്മുടെ വികാരങ്ങളും വിചാരങ്ങൾക്കും ശബ്ദം നൽകുന്ന ഫാഷ കൂടിയാണ് നമ്മുടെ മാതൃഫാഷ നമ്മുടെ നാടിൻ്റെ പൈതൃകം അറിയാനും ഉൾക്കൊള്ളാനും നമ്മളെ സഹായിക്കുന്നത് നമ്മളുടെ മാതൃഫാഷയാണ് നമ്മുടെ മാതൃഫാഷയിൽ നിന്നും ഒരു കുട്ടി അകലുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ മാതൃഫാഷയിൽ നിന്നും നമ്മളകലുമ്പോൾ നമ്മുടെ സാംസ്കാരിക പൈതൃകത്തിൽ നിന്ന് കൂടിയാണ് നമ്മൾ അകറ്റപ്പെടുന്നത് അതുകൊണ്ട് നമ്മുടെ മാതൃഫാഷ തന്നെയാണ് നമ്മൾ എപ്പോഴും ഉപയോഗിക്കാനുള്ളതും നമ്മളെപ്പോഴും ഉപയോഗിക്കേണ്ടതും അതേപോലെ തന്നെ ഇപ്പോഴത്തെ യുവജനങ്ങൾക്കിടയിൽ നമ്മുടെ മാതൃഫാഷയെ മറക്കുന്ന ഒരു പ്രവണതയാണ് കാണുന്നത് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ജനറേഷനിലുള്ള അച്ഛനും അമ്മയും മാതാപിതാക്കൾക്കാണെങ്കിൽ അവരുടെ മക്കൾക്ക് മാതൃഫാഷ അറിയില്ല എന്ന് പറയുന്നത് വളരെ ഒരു അഫിമാനത്തോടുകൂടി പറയുന്നവരാണ് ഇന്നത്തെ തലമുറയിൽ ഒരുപാട് ആൾക്കാർ പക്ഷേ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല കാരണം മാതാവ് നമ്മളൊരു മാതാവെന്ന് പറയുന്നതാണ് നമ്മുടെ ഒരു ആദ്യ ഗുരു അതേപോലെ തന്നെയാണ് നമ്മുടെ മാതൃഫാഷയാണ് നമുക്ക് എപ്പോഴും ആദ്യ സ്ഥാനം കൊടുക്കേണ്ടത് പിന്നെ വിദ്യഫ്യാസത്തിനും മറ്റ് ആവശ്യങ്ങൾക്കും നമ്മൾ പോകുമ്പോൾ നമ്മൾ അന്യഫാഷ പഠിക്കണം അതിൻറ്റേതായ ആവശ്യകതയും ഉണ്ട് എന്നാൽ പോലും നമ്മളൊരിക്കലും നമ്മുടെ മാതൃഫാഷയെ കൈവിടാൻ പാടില്ല കൈവിടാൻ പാടില്ല എന്നും നമ്മുടെ ഫസ്റ്റ് പ്രയോരിറ്റി നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ മാതൃഫാഷക്ക് തന്നെയാണ്